എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു സിനിമയാണ് ജോണി റ്റു ദ സെൻ്റര് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് സിനിമ എനിക്ക് ഇഷ്ടപ്പെടാന് കാരണം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പോള് ഇത് വളരെ കുറച്ച് സമയം ഒരു ഏകദേശമൊരു ഒന്നര മണിക്കൂര് മാത്രമേ ഈ സിനിമയുള്ളൂ പക്ഷേ എന്നിരുന്നാൽക്കൂടി ഇത് വളരെ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് ക്രിസ്റ്റഫർ നോളെന്ന ഡയറക്ടര് ഇത് ചെയ്തിരിക്കുന്നത് ഇത് നമ്മളിത് ഓരോ ഇത് കാണുമ്പോഴും അടുത്തത് എന്ത് സംഭവിക്കുമെന്നൊരു ആകാംക്ഷ നമ്മളെ ആകാംക്ഷയുടെ മുൾമുനയിലാണ് നമ്മളോരോ തവണയും എത്തിപ്പെടുക പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഓരോ വരിയിലും നമുക്ക് ആസ്വദിക്കാനും അതേപോലെ തന്നെ അറിയാനുമുണ്ടാകും ഫിസിക്സ്സ് നമുക്ക് എത്രത്തോളം അറിയാമോ അത്രത്തോളം നമുക്കാ സിനിമ ആസ്വദിക്കാന് കഴിയും കാരണം ഭൂമി ഇത് ഭൂമിയുടെ ഉള്ളിലേക്കുള്ളൊരു യാത്രയാണ് ഭൂമിയുടെയുള്ളില് അഗ്നിപർവ്വതത്തിൻ്റെ ഉള്ളിലേക്കുള്ളൊരു യാത്രയാണിത് വളരെ രസകരമായിട്ടും അതേപോലെ തന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന രീതിയിലുമാണ് ഈ സിനിമ ക്രിസ്റ്റഫർ നോളൻ നിർമ്മിച്ചിരിക്കുന്നത് എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകളൊത്തിരി ഇഷ്ടമാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ സിനിമകളില് എറ്റവും പ്രിയപ്പെട്ടതായി തോന്നുന്നത് ഇതുതന്നെയാണ് കാരണം ഒത്തിരി ചിരിക്കാൻ സാധിക്കും കാരണം ഫിസിക്സ് പഠിച്ചിട്ട് എനിക്കിന്നുവരെ ഫിസിക്സ് ക്ലാസ്സിലൊരു സംഭവവും കണ്ടിട്ട് ഇന്നുവരെ ചിരിക്കാൻ സാധിച്ചിട്ടില്ലാത്ത ആർക്കും തന്നെ ചിരിക്കാൻ സാധിക്കാറില്ല പക്ഷേ ഈ സിനിമ കാണുമ്പോൾ ചിരിക്കാനും ചിന്തിക്കാനും ഒരേപോലെ സാധിക്കുന്നു അത് ഫിസിക്സിലൂടെയാകുമ്പോള് അത് കൂടുതൽ ഫിസിക്സ് നമുക്ക് കൂടുതൽ ലളിതമായി സിനിമ മനസ്സിലാക്കിത്തരുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ആ സിനിമ വളരെയധികം പ്രാധാന്യമുള്ളതും പ്രിയപ്പെട്ടതുമാണ്